ഹലോ ഞാൻ ഇന്നലെ ഇങ്ങള അടുത്തൂന്ന് പീടികയിൽനിന്ന് ഒരു കത്തി വാങ്ങിയിരുന്നു ആ കത്തിയ്ക്ക് ഞാൻ നല്ല കത്തി നോക്കിയിട്ടാണ് ഞാനെടുത്തത് വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ രാവിലെ ഞാൻ കത്തി പച്ചക്കറി മുറിച്ചിടാൻ വേണ്ടിയിട്ട് കത്തി നോക്കുമ്പോൾ കത്തീൻ്റെ വക്കില്ല അതിൻ്റെ നടുവെല്ലാം കര വന്നത് പോലുണ്ട് ഞാൻ ഇങ്ങക്ക് നല്ല കത്തി അല്ലേ എട്ടാ ഞാനെടുത്ത് തന്നിനി പിന്നെ ഇങ്ങളെന്തിനാണ് അങ്ങനത്തെ കത്തി തന്നത് ഇരുന്നൂറ്റിഅൻപത് റുപ്പിയയ്ക്ക് വാങ്ങിയ കത്തിയല്ലെ അതെന്നാ പ്രശ്നം വന്നത് അതുകൊണ്ടനക്ക് കത്തി വേണ ഞാനെന്താണ് ചെയ്യേണ്ടത് ഞാൻ കൊണ്ടുത്തരട്ടേ ഇങ്ങൾ തിരിച്ച് വാങ്ങുവോ നിങ്ങൾ വാങ്ങാണ്ടെ എങ്ങനെ കൊല്ലനുണ്ടാക്കിയ കത്തിയാണ് നല്ല കത്തിയാണ് നല്ല ഗ്യാരൻറ്റി ഉള്ള കത്തിയാണെന്നെല്ലാം പറഞ്ഞിട്ടല്ലേ ഇങ്ങൾ തന്നത് ഞാൻ കത്തി ഞാനെന്താണ് ചെയ്യേണ്ടത് അനക്കെന്തിനാണ് കത്തി കത്തി പച്ചക്കറി മുറിച്ചിടാനൊന്നും പറ്റാത്തൊരു കത്തി അല്ലേ ഫുൾ കരവന്നിന് അതിന്റെ കൊക്ക് പൊട്ടീന് ഇങ്ങൾ നല്ല സാധനമാണ് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങൾക്ക് എടുത്തുതന്നിട്ട് ഇങ്ങൾ തല്ലിപ്പൊളി സാധനം വെക്ക് തരുക ചെയ്തത് കടലാസ് പൊതിയിൽ തന്നിട്ട് ഞാൻ രാത്രിക്ക് അത് ഞാൻ നോക്കിയിട്ടില്ല രാവിലെ ഞാൻ പച്ചക്കറി മുറിച്ചിടുമ്പോൾ ആന്ന് ഞാന് കത്തി നോക്കിയത് പിന്നെന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ഇങ്ങൾ ആ കത്തി അനക്ക് മാറ്റി തരണേ ഞാൻ ആ പീടികയിൽ കൊടുത്തേക്കാം ഓക്കെ തരൂല്ലന്നോ തിരിച്ചെടുക്കൂല്ലന്നോ പിന്നെ ഇങ്ങൾ നല്ല സാധനം തരണേ ഞാൻ നല്ല സാധനമല്ലേ ഇങ്ങൾക്ക് തന്നത് പിന്നെ ഇങ്ങളെന്തിനാണ് കത്തി പിന്നെ അനക്ക് വേറെ മാറ്റി തന്നത് കത്തി ഞാൻ എന്നാ ചെയ്യേണ്ടത് താ അനക്ക് ഇനി ആ കത്തീനെ കൊണ്ടൊരുപകാരം ഇല്ലല്ലോ പിന്നെ ഒരു പച്ചക്കറി പോയിട്ട് ഒന്നും മുറിയ്ക്കാനും കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങൾ കൊല്ലനുണ്ടാക്കിയ കത്തിയാണ് നല്ല ഗ്യാരൻറ്റി ഉള്ള കത്തിയാണെന്നെല്ലാം പറഞ്ഞിട്ടല്ലെ ഇങ്ങൾ തന്നത് പിന്നെന്നാ ചെയ്യുക അതുകൊണ്ട് അനക്ക് കത്തീൻ്റെ ആവശ്യമില്ല ഞാൻ ഇന്നലെ മുതൽ നിങ്ങളടുത്ത് വന്ന് വാങ്ങിച്ച് നോക്കുമ്പോൾ ഇങ്ങൾ നല്ല കത്തിയാണെന്നെല്ലാം പറഞ്ഞ് ഞാൻ നിങ്ങളനക്ക് ഞാൻ ഇങ്ങൾക്ക് നല്ല കത്തിയാണ് എടുത്ത് തന്നത് നിങ്ങളാണെന്ന് പിന്നെ മാറ്റിയിട്ടനക്ക് വേറെ കത്തി ഇങ്ങൾ തന്നിട്ട് അത് ഇങ്ങൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അതിപ്പം ഞമ്മക്ക് ഇപ്പം ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ഇങ്ങൾ മാറ്റി തരണം ഇരുന്നൂറ്റിയൻപത് റുപ്പിയല്ലേ ഒരു കത്തിക്ക് അത്രയ്ക്ക് നല്ല കത്തി ഇങ്ങൾ തരേണ്ടതല്ലേ ഞമ്മൾ തന്ന കത്തി ഇങ്ങളവിടെ മാറ്റി വെച്ചിട്ട് വേറെ പൊട്ടിയ ചട്ടിയൊ ഉള്ള കത്തി നമുക്ക് തരേണ്ടല്ലോ അതനക്ക് മാറ്റി തന്നേ പറ്റൂ ഞാനത് ഇങ്ങൾക്ക് കൊണ്ട് തരാം അനക്കാ കത്തിനേക്കൊണ്ടൊരാവശ്യവുമില്ല ആ കത്തി അങ്ങനെ പോക്കാണ് പച്ചക്കറി പോയിട്ട് ഒരു ക് കൈ വരെ മുറിയാത്തൊരു കത്തിയാണ് ആ കത്തീനെ കൊണ്ടെന്തെന്നാ ഉപകാരം ഒരുപകാരവുമില്ല ഞാൻ പിന്നെ നല്ല കത്തി ഞാൻ തിരിഞ്ഞ് തിരിഞ്ഞ് എടുത്തിട്ട് ഇങ്ങൾക്ക് ഞാൻ നല്ല കത്തി തന്നിട്ട് ഇങ്ങളവിടെനിന്നനക്ക് വേറെ മുറിഞ്ഞ കത്തി ഇങ്ങളനക്ക് പിന്നെ എന്നെ പറ്റിച്ച് അതിന്റെ ഒരാവശ്യം ഇല്ലല്ലോ നല്ല സാധനം തരേണ്ടേ ഒരാൾ പിന്നൊരു സാധനം വാങ്ങ് വാങ്ങാൻ വേണ്ടി തന്നാൽ നല്ല സാധനം തരേണ്ടേ നല്ല പൈസയും കൊടുത്തിട്ട് മേടിക്കുമ്പോൾ ഇങ്ങളെന്തിനാണിങ്ങനത്തെ സാധനം പിന്നെ പീടികയിൽ വിൽക്കുന്നത് പീടികയിൽ വിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് അനക്ക് ആ സാധനം തിരിച്ച് താ തന്നേ പറ്റൂ അല്ലെങ്കിലത്തിന്റെ പൈസ തിരിച്ച് തരണം അല്ലാണ്ടിപ്പം അനക്കിപ്പോൾ കത്തീനെ കൊണ്ടൊരുപകാരം ഇല്ലല്ലോ ഞാനെന്നാ ചെയ്യുക അത് ഞാനിപ്പം തന്നെ ഇങ്ങൾക്ക് കൊണ്ടുത്തരാം വേണ്ടെന്നോ വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാര്യം ശരിയാകുക അതിനൊരു കാര്യം ഇല്ലല്ലോ ഞാൻ കൊണ്ടുത്തരാം കത്തി ഇങ്ങൾക്ക് എന്നിട്ട് ഇങ്ങൾ നോക്ക് കത്തി ഇങ്ങൾ നോക്കിയിട്ട് തന്നാൽ മതി പൈസ തിരിച്ച് തന്നാൽ മതി കത്തീൻ്റെ ഗുണം നോക്കിയിട്ട് അല്ലാണ്ട് എനിക്കങ്ങനത്തെ കത്തീന്ക്ക് ഒരാവശ്യമില്ലല്ലോ ഉപകാരമില്ലാതെ കത്തി എന്തിനാണ് അനക്ക് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇന്നലെ രാത്രി കത്തി മേടിച്ചിട്ട് ഞാൻ രാവിലെയാണ് ഞാൻ നോക്കിയത് നോക്കുമ്പോൾ കത്തി ഇങ്ങനെ കത്തീൻ്റെ ഫുൾ നടുകെല്ലാം ഒട്ടീന് മൊൻ മുന പൊട്ടീന് അതുകൊണ്ടതിന്റെ കൊക്കെല്ലാം പൊട്ടിയതുകൊണ്ട് അനക്ക് ആ കത്തീനെ കൊണ്ടൊരുപകാരമില്ല അതുകൊണ്ടെന്നാ ചെഎണ്ടതെന്ന് വെച്ചാൽ ഇങ്ങളത് ചെയ്ത് തരണം എല്ലാ പൈസ തിരിച്ച് തന്നാൽ ഇല്ലേൽ വേണ്ട ഞാൻ കത്തി ഇങ്ങൾക്ക് കൊണ്ടുത്തരാം ഇങ്ങളതിനെ കൊണ്ട് നന്നാക്കിക്കൊ ഇല്ലാണ്ടിപ്പം അനക്കൊന്ന് ചെയ്യാൻ കഴിയില്ലല്ലോ അതാണ് ഞാൻ കത്തി ഇവിടെ വെച്ചിട്ടുതന്നെ അതിന്റെയൊരാവശ്യം അനക്കില്ലല്ലോ നമ്മൾ സാധനം മേടിക്കുന്നത് നമുക്കുപകാരത്തിന് വേണ്ടിയിട്ടല്ലേ അല്ലാണ്ട് വെർക്കിങ്ങനെ വയ്ക്കാനല്ലല്ലോ കടയിലെല്ലാം കത്തി വയ്ക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം അല്ലാണ്ടിപ്പോൾ ഞമ്മളെ പോലത്തെ ആളെ പറ്റിച്ചിട്ടെന്താണ് കാര്യം അതുകൊണ്ടനക്ക് കത്തി തിരിച്ച് തന്നേ പറ്റൂ അല്ലേൽ എൻ്റെ പൈസ തരണം അല്ലാണ്ട് അനക്ക് വേറെ നിങ്ങളോട് പറയാനില്ല ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരുന്നു എനിക്കാ പൈസ അല്ലങ്കിൽ കത്തി കത്തി അല്ലേൽ പൈസ രണ്ടിലൊന്നനക്ക് തിരിച്ച് തരണം അല്ലേൽ ഇങ്ങനത്തെ വേറെ സാധനം കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇങ്ങൾ കൊടുക്കുകയും ചെയ്യണം അല്ലാണ്ട് ഒരാൾക്ക് ഇങ്ങനെ പറ്റിക്കൽ പരിപാടി നടത്തരുത് ഇപ്പം എന്നെ ചെയ്ത പോലെ വേറെ ആളെ ഇങ്ങൾ ചെയ്യേ ചെയ്യരുത് അതുകൊണ്ട് ഞാനിപ്പം തന്നെ അങ്ങോട്ട് വരുന്നു ഞാൻ കത്തി എടുത്തിട്ട് വരുന്നു എന്നിട്ട് നിങ്ങൾ ഒന്നിക്കി കത്തി തരിക അല്ലെങ്കിൽ പൈസ തിരിച്ച് തരിക ആ രണ്ടിലൊന്ന് എനിക്ക് നിങ്ങൾ ചെയ്ത് തരണം അത് ഞാനിപ്പം തന്നെ അങ്ങോട്ട് വരുന്നു ആ അപ്പം തന്നിട്ടില്ലങ്കിൽ എനിക്ക് നിങ്ങള കത്തീം വേണ്ട ഞാൻ പൈസയും ഒഴിവാക്കും അതുകൊണ്ടൊന്നും വേണ്ട അത്രേ ഉള്ളൂ അല്ലേൽ സാധനം ഞാനാരോടും വാങ്ങ വാങ്ങണ്ട എന്ന് പറയുകയും ചെയ്യും കൊല്ലൻ തീർത്തതാണെന്ന് പറഞ്ഞിട്ട് തന്നിട്ട് ഇപ്പം ഇങ്ങനെയാണ് നല്ല സാധനം നല്ല സാധനമെന്ന് പറഞ്ഞിട്ട് നല്ല സാധനമെടുത്ത് തന്നിട്ട് വെടക്ക് സാധനമാണ് തരിക